കാർഷിക മേഖലയില് വച്ച് ഏർപ്പെട്ടിരിക്കുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എപ്പോൾ കൃഷി നടത്തണം എങ്ങനെ നടത്തണം എങ്ങനെയെന്നുള്ളത് അതിനെപ്പറ്റി നല്ലൊരു ബോധം ഉണ്ടായിരുന്നാലേ ന്യായമായ വിളവ് ലഭിക്കുകയുള്ളു എപ്പോഴെങ്കിലും കൃഷി ചെയ്യുന്നതുകൊണ്ടു കാര്യമില്ല അതിൻ്റെ ആ സമയാസമയങ്ങളിൽ ആ കൃഷി നടത്തുകയും അതായത് പുതുമഴ പെയ്യുമ്പോൾ അതായത് ഏപ്രിൽ മാർച്ച് ഏപ്രിൽ മാസത്തിൽ നടേണ്ട ചെടികൾ കൃഷികൾ അത് ഒരു മഴക്കാലത്തു ചെയ്താൽ അതിൻ്റെ വിളവുകൾ വളരെയധികം കുറയും വിളവുണ്ടാകാതിരിക്കുകയും കർഷകനു സാമ്പത്തികമായ നഷ്ടം വരികയും അതുകൊണ്ട് ഒരു ആദ്യമായിട്ട് വേനൽമഴ കിട്ടുമ്പോൾ ഹൈറേഞ്ചിൻ്റെ രീതി അനുസരിച്ചാണെങ്കിൽ കൃഷികൾ ചെയ്യേണ്ടത് പിന്നെ മരച്ചീനി ചേന ചേമ്പ് കാച്ചില് എന്നിവയൊക്കെ അതോടൊപ്പം നട്ടാല് വിളവുകൾ കൂടുതലുണ്ടാകും മണ്ണിൻ്റെ ഘടനയനുസരിച്ച് ഹൈറേഞ്ചിൽ കിഴങ്ങു വർഗ്ഗങ്ങൾ എത്രയും നേരത്തെ നടുന്നതാണു നല്ലത് എന്നാൽ ലോ റേഞ്ചിൻ്റെ രീതിയില് അൽപ്പം താമസിച്ചു നട്ടാലും കിഴങ്ങുവർഗ്ഗങ്ങൾക്കൊക്കെ വിളവു ലഭിക്കും ആ അത് നമ്മള് പ്രത്യേകം മറ്റേ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ ഈ വിള കിഴങ്ങുവർഗങ്ങളിലൊക്കെ എന്തു ചെടികൾ നട്ടാലും അതിന് ആവശ്യമായ സൂര്യപ്രകാശം ലഭിക്കണം അതുപോലെ ആവശ്യമായ അകലത്തില് നടണം അടിപ്പിച്ച് കൂടുതൽ എണ്ണം നട്ടതുകൊണ്ട് വിളവു കൂടുതലുണ്ടാവുകയും സാമ്പത്തികമായി നേട്ടം ഉണ്ടാവുകയും ചെയ്യില്ല അതുകൊണ്ട് നമ്മൾ ചെടികൾ നടുമ്പോൾ ആധുനിക രീതിയിൽ പറഞ്ഞിട്ട് ശാസ്ത്രീയ രീതിയിലുള്ള അകലം പാലിച്ചുതന്നെ കൃഷി ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ടാണ് കർഷകനെ സംബന്ധിച്ചു വളരെ നേട്ടം ഉണ്ടാവുകയുള്ളു സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയുള്ളു അതോടൊപ്പം ഈ നിശ്ചിത കാലത്തിൽ നട്ടിരിക്കുന്ന പല വർഷങ്ങളും മറ്റു വർഷവിളകളുടെ ഇടയില്ക്കൂടി ആ അതിൻ്റെ ഇടയ്ക്കു മറ്റു കൃഷികൾ ചെയ്യുന്നതുകൊണ്ട് രണ്ടിൻ്റെയും ആദായം നമുക്കു പൂർണമായിട്ടു ലഭിക്കുകയില്ല അതായത് തെങ്ങുകളുടെ ഇടയ്ക്ക് തെങ്ങ് ഇച്ചിരി അകലത്തിൽ മുപ്പതടി അകലത്തില് അല്ലെങ്കില് ഇത്ര മീറ്റർ അകലത്തിൽ തെങ്ങ് കൃഷി ചെയ്യണം പിന്നെ നമ്മള് നമ്മൾക്കറിയുകയും ചെയ്യാം അതിൻ്റെ ഇടയ്ക്കു നമ്മള് കൊണ്ടുവന്ന് പല കൃഷികള് ജാതിയായി വാഴയായി കൊക്കോയായി എല്ലാം കൈയില് കിട്ടുന്ന കുരുമുളകൊക്കെ ആയിട്ട് കൃഷി ചെയ്യും പക്ഷെ അതുകൊണ്ട് തെങ്ങിൻ്റെ ആദായം പൂർണ്ണമായിട്ടു ലഭിക്കയില്ല കുരുമുളകിൻ്റെ കിട്ടുകയില്ല കൊക്കോയുടെയും കിട്ടുകയില്ല ഒന്നും കിട്ടുകയില്ല അങ്ങനെ ചെയ്യാതെ നമ്മൾ ഉള്ള സ്ഥലത്തിൻ്റെ വിസ്തീർണം അനുസരിച്ച് ഏതെല്ലാം കൃഷികൾ നമ്മൾ ചെയ്യണം എപ്പോൾ ചെയ്യണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കണം ഇപ്പോള് അതായത് രണ്ടേക്കർ സ്ഥലമുള്ള ഒരു കർഷകന് അതായത് ഉള്ള കർഷകന് എന്തെല്ലാം കൃഷികളാണ് ഹൈറേഞ്ചിൻ്റെ രീതിയില് അല്ലെങ്കില് നമ്മുടെ പ്രദേശത്തിൻ്റെ രീതിയില് കാലാവസ്ഥയ്ക്ക് അനർത്ഥമായി കൃഷി ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കണം അതായത് നമ്മുടെ കാലാവസ്ഥയ്ക്കു വളരുന്ന കൃഷികൾ മാത്രമേ വിളവു കിട്ടുന്ന കൃഷികൾ മാത്രമേ ചെയ്യാവൂ മറ്റുള്ള മേഖലയിൽ കൃഷി വിളവു കിട്ടുന്നുണ്ട് അതുകൊണ്ട് നമുക്കു നടാമെന്നു വച്ചാൽ ലോ റേഞ്ചിലേക്കു കൃഷി പിന്നെ ചെയ്യുന്ന റബ്ബര് പോല ഇല്ല ഹൈ റേഞ്ചില് കൃഷി ചെയ്യുന്ന വിള കിട്ടുകയുമില്ല കാരണം ഹൈ റേഞ്ചിൽ റബ്ബര് കൃഷി ചെയ്താല് വളരുകയൊക്കെ ചെയ്യും പാല് കിട്ടുകയും ചെയ്യും അതായത് ലോ റേഞ്ചിൽ നൂറ് നൂറ്റി മുപ്പത് ദിവസം ടാപ്പിംഗ് ചെയ്യാമെങ്കിൽ ഹൈ റേഞ്ചിൽ കൂടി വന്നാല് അറുവത്തേഴു ദിവസമേ ചെയ്യാൻ പറ്റുകയുള്ളൂ കാലാവസ്ഥയുടെ വ്യതിയാനവും മറ്റ് എല്ലാം ഇലപൊഴിച്ചലൊക്കെ ഉള്ളതു കൊണ്ടാണ് അതുകൊണ്ട് നമ്മള് ഹൈ റേഞ്ചിൽ റബര് കൃഷി ചെയ്താൽ നമുക്കു കർഷനെ സംബന്ധിച്ചിടത്തോളം ലാഭകരമല്ല അതുപോലെതന്നെ ഇപ്പോള് ഏലം പിന്നെ ഹൈ റേഞ്ചിൽ കൃഷി ചെയ്യുന്നുണ്ട് ഏലം ഹൈ റേഞ്ചിൽ കൃഷി ചെയ്തിരുന്നാല് അനുകൂലമായ കാലാവസ്ഥയുണ്ട് എന്നു വിചാരിച്ച് ലോ റേഞ്ചിൽ ഏലം കൃഷി ചെയ്താൽ അത്ര വിളവു കിട്ടുകയില്ല അതിന് അനുകൂലമായ കാലാവസ്ഥയല്ല ഹൈ റേഞ്ചിൻ്റെ തന്നെ പല മേഖലകളിലും മായ കാലാവസ്ഥയാണ് ഉള്ളത് മൂന്നാറു പോലുള്ള കാലാവസ്ഥയും മറയൂരു പോലുള്ള ഇലകളും ഒക്കെ വളരെയധികം വിഭിന്നമാണ് മറയൂരിലെ കൃഷി മൂന്നാറില് പറ്റില്ല മൂന്നാറിലെ കൃഷി നമ്മള് കുമളിയില് ചെയ്യാൻ പറ്റില്ല അതുപോലെ കാപ്പി ഹൈ റേഞ്ചിൻ്റെ രീതിയനുസരിച്ച് കാപ്പി ഏലം എന്നിവയാണ് കൂടുതൽ അഭികാമ്യം അതിനു മേഖലയിലല്ലാതെയുണ്ട് കശുമാവൊക്കെ നന്നായിട്ടു വളരുന്ന കഞ്ഞിക്കുഴി പോലുള്ള ഇടുക്കിയുടെ താലൂക്ക് ചില ഭാഗത്തൊക്കെ ഉണ്ട് അതൊക്കെ നമ്മള് ഏതാണ് ചെയ്യേണ്ടതെന്നു തിരുമാനിക്കുകയും സ്വന്തമായി ഒരഭിപ്രായം ഉണ്ടാകേണ്ടത് അതോടൊപ്പം വിവിധ വിള ചെയ്യുകയാണെന്നുണ്ടെങ്കില് അതിന് വിവിധ ഏക്കറുകളെ സെന്റുകളായി തിരിച്ച് ഇപ്പോഴതിന് പച്ചക്കറിക്ക് അത് പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാൻ മറ്റും ഒരു പത്തു സെന്റ് വീടിനോടു പരിസരത്ത് നന്നായിട്ട് ന നീക്കിയിടുകയും അതു സൂര്യപ്രകാശം അടിക്കുകയും ഒക്കെ ചെയ്താൽ വീട്ടില് ഒരു വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളെല്ലാം ഉൽപാദിപ്പിക്കാം അതിന് വീടിൻ്റെ പരിസരത്ത് ഒരു പത്ത് സെന്റ് സ്ഥലം മാറ്റിയിട്ടാല് മതി ദീർഖമായിട്ട് വിളയെടുക്കുന്ന കക്ഷികളുണ്ട് മുരിങ്ങ അതുപോലെയുള്ള സാധനങ്ങളുണ്ട് അതില് മൂന്നു മാസംകൊണ്ടു വിളയെടുക്കുന്ന ആറു മാസം കൊണ്ടു വിളയെടുക്കുന്ന കൃഷികളുണ്ട് അതൊക്കെ ഏതാണു ചെയ്യണ്ടതെന്നു നമ്മൾ തന്നെ തീരുമാനിക്കണം നമ്മുടെ ആവശ്യമായ പപ്പായ മുതലുള്ള ദീർഘകാലമായിട്ടു വിളകിട്ടുന്ന മുരിങ്ങ അതുപോലെയുള്ളതുണ്ട് പച്ചക്കറിയെ സംബന്ധിച്ച് വേലിയില് പടങ്ങിൽ പടര്ത്തി വളർത്താവുന്ന കുമ്പളങ്ങ മത്തങ്ങ പാവല് പയര് എന്നിവയൊക്കെയുണ്ട് അതൊക്കെ കൃഷി ചെയ്യുകയെന്നു തീരുമാനിക്കണം പിന്നെ സ്ഥലത്തിൻ്റെ വിസ്തീർണ്ണമനുസരിച്ച് നമ്മള് കൊക്കോ എത്ര സെൻറ് സ്ഥലത്തു വേണം കുരുമുളക് എത്ര സെൻറ് വേണം തെങ്ങെത്ര വേണം അങ്ങനെ മറ്റു കൃഷികള് കൂടുതലുമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഞാന് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരാശ്രയിക്കാതെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം ഈ നാണ്യ വിളകൾ മറ്റു സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാകുമ്പോൾ അതില്ക്കൂടുതൽ സാമ്പത്തികം നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ് രോഗങ്ങളും ക്യാൻസർ അതുപോലുള്ള തീരാ രോഗങ്ങളും കിഡ്നി രോഗങ്ങളും ഹൃദ്രോഗങ്ങളുമൊക്കെ കൂടുന്നത് നമ്മൾ മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് പിന്നെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ആശ്രയിക്കുന്നുണ്ട് അവര് പിന്നെ വില്പനയ്ക്കുവേണ്ടി അമിതമായി കീടനാശിനികള് രാസവളങ്ങളൊക്കെ ഉപയോഗിച്ച് ഉൽപാദിപ്പിക്കും അത് നമ്മള് വാങ്ങി നമ്മള് വിഷം വില കൊടുത്തു മേടിച്ചുകഴിക്കുന്നു അതുകൊണ്ട് രോഗങ്ങളും ഇതൊക്കെ ഉണ്ടാകുന്നു ആ രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ എന്തു മരുന്നു ചെയ്താലും അതില്ക്കൂടുതല് വലിയ വിഷമാണ് നമ്മുടെ ശരീരത്തില് കിടക്കുന്നത് അതുകൊണ്ട് നമ്മളുടെ ശരിരത്തില് ഏല്ക്കുകയില്ല ഒരു നിശ്ചിത പ്രായം കഴിയുമ്പോൾ ഈ രോഗങ്ങളൊക്കെ നമ്മളെ അടിമയാകുകയും ചെയ്യും അതുകൊണ്ട് നമ്മുടെ ഭക്ഷ്യ സുരഷ ഭക്ഷ്യ ഉത്പന്നങ്ങൾ കൂടുതൽ കൃഷി ചെയ്യുക സ്വന്തം ആവശ്യത്തിന് അവനവൻ്റെ ആവശ്യത്തിനുള്ള ഭക്ഷ്യധാന്യങ്ങൾ കൃഷി ചെയ്യുകയും കപ്പ കാച്ചില് അതിൻ്റെ പച്ചക്കറികളും മറ്റേ മാവ് പ്ലാവ് എന്നിവയൊക്കെവച്ച് അത്യാവശ്യത്തിന് ചെയ്യുകയും ചെയ്യേണ്ടതാണ് അല്ലാതെ നമ്മൾ എന്നാ മറ്റുള്ള ആശ്രയിക്കാതെ സ്വന്തമായി സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാക്കുവാന്വേണ്ടി സാമ്പത്തികമായിട്ട് ആരോഗ്യപരമായി നേട്ടമുണ്ടാകുവാൻ വേണ്ടിയിട്ട് ഇതു ചെയ്യേണ്ടത് അത്യാവശ്യമാണ് സാമ്പത്തിക നേട്ടത്തോടൊപ്പം ആരോഗ്യം ഉണ്ടായാൽ മാത്രമല്ല സാമ്പത്തിക നേട്ടമുണ്ടായാല് ആരോഗ്യം ഇല്ലെങ്കിൽ നമ്മൾ എന്തു സമ്പാദിച്ചിട്ടും കാര്യമില്ല അതുകൊണ്ട് ആ കൃത്യ സമയത്ത് എന്നാ ഈ കൃഷികൾ വിളവിറക്കുകയും കൃത്യ സമയത്ത് അതിനു മറ്റു പരിചരണങ്ങൾ നടത്തുകയും ചെയ്യണം അതിനു കൃത്യ സമയങ്ങളില്ചെയ്തിട്ട് കാര്യമുള്ളൂ എപ്പോഴെങ്കിലും വളം ചെയ്തിട്ടു കാര്യമില്ല സമയത്ത് കൃത്യസമയത്ത് വളം ചെയ്യണം വാഴക്കൃഷി പോലെയുള്ള സമയത്ത് കൃത്യസമയത്ത് കൃഷി വളം മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ അതിനു ന്യായമായ ഉൽപാദനം കിട്ടുകയുള്ളൂ എപ്പോഴെങ്കിലും നമുക്ക് സമയമുള്ളപ്പോൾ ചെയ്താൽ അതിന് ഉല്പ്പാദനം കിട്ടുകയില്ല ആ സാമ്പത്തികമായിട്ട് പരാജയമായിരിക്കും കർഷകരെ സംബന്ധിച്ച് അതുകൊണ്ട് ഈ കാര്യത്തിൽ കൃത്യമായ ഒരു ബോധം ജനങ്ങൾക്കുണ്ടായിരിക്കണം അത് എന്നാ എല്ലാവരും ബോധ്യപ്പെടുത്തുകയും ചെയ്യണം എന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങളെല്ലാവരുടെയും അറിവിലേക്കായി അഭ്യർഥിക്കുകയാണ്